നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില് മലിനജലം ഒഴുകുന്നതിനുവേണ്ടി ഓടകളും കാനകളും ഒക്കെ നിര്മ്മിച്ചിട്ടുണ്ട് അവ വെള്ളം സ്മൂത്ത് ആയിട്ട് ഒഴുകി പോവാൻ വേണ്ടി അത് അതിന് ബന്ധപ്പെട്ട ആള്ക്കാർ ശ്രദ്ധിക്കണം അത് ഓടകളുടെയും കാനുകളുടെയും മുകളില് സ്ലാബ് ഒക്കെ ഉള്ളത് നല്ലതാണ് അതുവഴി അപകടങ്ങള് കുറയ്ക്കാന് നല്ലതാണ് രോഗങ്ങളും നമുക്ക് തടയാന് പറ്റും ചില ജനങ്ങളൊക്കെ ആള്ക്കാർ കൊണ്ട് ഈ മാലിന്യ ഒക്കെ ഈ ഓടകളിലൊക്കെ വലിച്ചെറിയുന്നുണ്ട് അതുവഴി വെള്ളം സ്മൂത്ത് ആയിട്ട് പോവാന് സാധിക്കുകയുമില്ല അത് അവിടെ കെട്ടിക്കിടന്ന് മലിനജലം പുറത്തോട്ട് ഒഴുകുകയും അതുവഴി രോഗങ്ങളക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യങ്ങള് വലിച്ചെറിയരുത് ഓടകളിലും ഖാനകളിലും ഒക്കെ എന്നുവെച്ചാൽ ഈ ഈ ഓടകളിലും കാനകളിലുമൊക്കെ വീണ് ഇപ്പോൾ ഒരുപാട് അപകടങ്ങള് നടക്കുന്ന നടന്നിട്ടുണ്ട് നമ്മൾ അത് പത്രങ്ങളിലൂടെയും വാര്ത്തകളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നതുമുണ്ട് അതുകൊണ്ട് അതിനെ മൂടിയിടാന് ശ്രമിക്കുക അതുവഴി കൊതുകൊന്നും വരാതിരിക്കാന് വരാതിരിക്കാനും രോഗങ്ങള് തടയാനും നമുക്ക് സാധിക്കും പിന്നെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും റോഡ്സൈഡിൽ ആയാലും ഒക്കെ കാനകളും മറ്റും ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ് കാരണം അതുവഴി അത് വൃത്തിയായി സൂക്ഷിക്കുകയും എല്ലാവര്ഷവും അത് വൃത്തിയാക്കുകയും ചെയ്യണം എന്നാലെ നമുക്ക് എല്ലാവര്ഷവും മഴക്കാലം വരുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും നമുക്ക് ഈ മലിനജലം ഒക്കെ പോവാനും ഒക്കെ സാധിക്കൂ ഇപ്പോൾ നമ്മുടെ വീടുകളിലായാല്ത്തന്നെ ഇനി ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവര് ആയാൽത്തന്നെ അതിന് പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടതാണ് എന്നിട്ടത് നിര്മാജനം ചെയ്യണം അതിനുവേണ്ട സൗകര്യങ്ങള് ഗ്രാമങ്ങള് ഗ്രാമസഭയും പഞ്ചായത്തുമൊക്കെ അത് ഏര്പ്പാട് ആക്കി കൊടുക്കണം എന്നാലെ നമുക്ക് അത് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാന് പറ്റുകയുള്ളൂ അപ്പോള് എല്ലാ ഗ്രാമങ്ങളിലും അതിനുവേണ്ട അധികാരികള് ഇത് ശ്രദ്ധിക്കുകയും ഓടകളും കാനകളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും അതിലൂടെ മലിനജനം ഒഴുകി പോവാൻ വേണ്ട കാര്യങ്ങ ഒക്കെ ചെയ്യുകയും അത് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ നല്ല കാര്യങ്ങളാണ് അതുവഴി നമുക്ക് ഇപ്പോൾ ഈ മഴ പെയ്യുന്ന റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനും ഏതാ ഈ ഓടകളക്കെ അടഞ്ഞാൽപ്പിന്നെ അതിലൊക്കെ വെള്ളം പോവാന് പ്രയാസമാ അപ്പോൾ ഈ ഓടയിലെ വെള്ളം റോഡില് കയറുകയും റോഡീ മഴ പെയ്ത വെള്ളവും എല്ലാംകൂടെ ആകുമ്പം മനുഷ്യന് നടക്കാനും വണ്ടി വാഹനങ്ങള്ക്ക് പോകാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും അതുവഴി നിരവധി അസുഖങ്ങൾ ഉണ്ടാവാനും എലിപ്പനി അങ്ങനെ പലപല രോഗങ്ങള് ഉണ്ടാവാനും സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കും അതിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ട് പഞ്ചായത്ത് വേണ്ടത് പഞ്ചായത്ത് ചെയ്യുക ജനങ്ങൾക്ക് ചെയ്യാന് പറ്റുന്നത് ജനങ്ങൾ ചെയ്യുകയും ചെയ്യണം